അതെ മാഡം പറഞ്ഞോളൂ ആ ഓക്കെ

നമുക്കിപ്പോൾ തൗസന്റ് ടു ഹണ്ട്രഡ് തൊട്ട് വണ്ടി അവൈലബിള് ആണ് മാഡം ആ ഇപ്പം നമുക്ക് ഏറ്റവും ലോ ബഡ്ജറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറു രൂപയാണ് ഒരു വണ്ടിക്ക് പെര് ഡേ അതായത് ട്വന്റി ഫോര് ഹവേര്സ് നമുക്ക് കൂടുതലും സ്കൂട്ടികളിപ്പോൾ ഓള്മോസ്റ്റ് ഹണ്ട്രഡ് സി സി വരുന്ന ടു വീലേര്സ് സ്കൂട്ടികളാണ് നമ്മൾ ആ ഒരു പ്രൊവൈഡ് ചെയ്യുന്നത് ആ ഒരു റേറ്റിന് പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ പവർ കുറവുള്ള വണ്ടികള്ക്കൊക്കെ ആവുമ്പോൾ എമൗണ്ട് വ്യത്യാസം വരും ഹിമാലയന് പോലെയുള്ള വണ്ടികളൊക്കെ ആണെങ്കിൽ ഒരു ത്രീ തൗസന്റ്റിന്റെയൊക്കെ അകത്തു വരും ഒരു ടു തൗസന്റ് ഫൈവ് ഹണ്ട്രഡ് ത്രീ തൗസന്റ് അതിന്റെ അകത്തേ വരുള്ളൂ ഹെല്മെറ്റ് നമ്മളിപ്പോൾ ഐ എസ് ഐ സര്ട്ടിഫിക്കറ്റ് സര്ട്ടിഫയിഡ് ആയിട്ടുള്ള രണ്ട് ഹെല്മെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് സേഫ്റ്റി ബെറ്റര് ആണെന്നു തോന്നുവാണെങ്കിൽ ബെറ്റര് ആയിട്ട് വേറെ കൊണ്ടു വരുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ യൂസ് ചെയ്യാം ഇല്ല നിങ്ങൾക്ക് ഇപ്പം എത്ര ദിവസം വേണമെങ്കിലും വണ്ടി യൂസ് ചെയ്യാം അതിനനുസരിച്ച് പെയ്മെന്റ് ചെയ്യേണ്ടി വരും എന്നേ ആ നമ്മളിപ്പോൾ ഏറ്റവും ലോ വരുന്നേ തൗസന്റ്റ് ടു ഹണ്ട്രഡ് ആണ് മ് ഓക്കെ അതിപ്പം നമുക്ക് നാല് പേരാണെങ്കിൽ എത്ര വണ്ടി എടുക്കുന്നുണ്ടോ അതിനനുസരിച്ചാണ് പേയ്മെന്റ് ഇപ്പം നാലു പേര്ക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു വണ്ടി ഒരു വണ്ടിയിൽ രണ്ടു പേർ വെച്ച് പോവാണെങ്കിൽ രണ്ട് വണ്ടി മതിയാവുമല്ലോ അപ്പോൾ എത്ര വണ്ടി ആണ് നിങ്ങൾ വേണ്ടതെന്ന് പറയുവാണേൽ നമുക്ക് അതിനനനുസരിച്ച് ചെയ്യാന് പറ്റും നിങ്ങൾക്ക് ആ രണ്ട് വണ്ടി മതിയല്ലോ ഓക്കെ ഓക്കെ വേണ്ട നമുക്ക് ഇപ്പം ഓള്മോസ്റ്റ് ഷോപ്പിൽ ഓള്മോസ്റ്റ് എല്ലാ വണ്ടികളും അവൈലബിള് ആയിരിക്കും കാരണം നമുക്ക് ഇപ്പോൾ ഒരു വണ്ടി തന്നെ നമുക്ക് ഒരുപാട് വണ്ടികൾ സ്റ്റോക്ക് ഉണ്ടാവും ഇപ്പോൾ ഒരു ടൈപ്പ് വണ്ടി തന്നെ നമുക്ക് ഒരുപാടെണ്ണം സ്റ്റോക്ക് ഉണ്ടാവും അതുകൊണ്ട് നമക്കിപ്പോൾ വണ്ടികൾ ഏത് വേണമെങ്കിലും പ്രൊവൈഡ് ചെയ്യാം മ് മ്

ആ കാലികറ്റ് ടൗണിൽ തന്നെ ഓക്കെ മാഡം വരും മുന്നേ കോണ്ടാക്റ്റ് ചെയ്താൽ മതി